സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികള് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റേതായ ചെലവുകളില് നടക്കുന്നതുകൊണ്ട് അവിടെ പഠിക്കുമ്പോൾ ഫീസുകൾ കൊടുക്കേണ്ട പിന്നെ അതുപോലെ മറ്റു പുസ്തകങ്ങള് യൂണിഫോമുകളൊക്കെ അവിടെനിന്ന് നമുക്ക് സാമ്പത്തികം കൊടുക്കാതെ ലഭിക്കും അതാണ് സർക്കാര് സ്കൂളുകളിൽ പഠിച്ചാലുള്ള ഗുണങ്ങള് അതുപോലെ തന്നെ പിന്നെ മറ്റു പല കാര്യങ്ങളും അവിടെ നമുക്ക് ആനുകൂല്യമായി ലഭിക്കും പരീക്ഷാഫീസുകള് അടയ്ക്കേണ്ട അതുപോലെ തന്നെ മുന്നോട്ടുള്ള സർക്കാര് സ്കൂളുകളില് പഠിക്കുന്നതിന് സർക്കാരിൻ്റെതായ ഓരോ ആനുകൂല്യങ്ങൾ പറ്റി പഠിക്കുന്ന കുട്ടികൾക്ക് അതിന് പ്രത്യേകമായ ആ ഒരു അനുകൂല്യമുണ്ട് എന്നാൽ സർക്കാര് സ്കൂളില് പഠിക്കുകയെന്ന് പറയുമ്പോള് സാമ്പത്തികം കുറവുള്ളവര് പഠിക്കുന്നുവെന്നാണ് ജനങ്ങൾ കരുതുന്നത് എന്നാൽ അങ്ങനെയല്ല നമ്മുടെ രാജ്യത്തെ സേവനങ്ങളാണ് അതെല്ലാം സ്കൂളുകളില് സൗകര്യം കുട്ടികൾക്ക് പഠിക്കുവാനുള്ള സൗകര്യങ്ങൾ കൊടുക്കുക സർക്കാർ സ്കൂളുകളാണെങ്കിൽ ഏറ്റവും നല്ല കാര്യങ്ങളായി അത് മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെയൊരു അഭിപ്രായം പിന്നെ സാമ്പത്തികമുള്ളവരാണ് അതുപോലെ മറ്റുള്ള സ്കൂളുകളിലൊക്കെ വിട്ട് ഫീസുകളൊക്കെ അടച്ച് നല്ല സൗകര്യത്തോടുകൂടി വാഹനങ്ങളൊക്കെയായി വീട്ടുപടിക്കൽ നിന്ന് നമുക്ക് തിരിച്ച് വീട്ടുപടിക്കല് കൊണ്ട് കുട്ടികളെ എത്തിക്കും അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് അപ്പം സർക്കാർ സ്കൂളുകളെന്ന് പറയുമ്പോള് കുട്ടികൾ ചിലപ്പോള് ദൂരങ്ങൾ നടന്ന് പോയി ഈ പഠിക്കുന്നവരുണ്ട് അതുപോലെത്തന്നെ ഇത് അനുകൂല്യം പറ്റാതെ പഠിക്കുമ്പോൾ അവിടെയൊരു കുറവെന്ന് കാണുന്നു പക്ഷെ അത് തെറ്റാണ് ഒരു കുറവുമില്ല നമ്മുടെ കുട്ടികള് നമ്മുടേതായ സർക്കാരിൻ്റെ സേവനങ്ങളില് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു അഭിപ്രായം സ്വകാര്യ സ്കൂളുകളെന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട് കുട്ടികളുടെ എല്ലാ കാര്യങ്ങളിലും അവര് പ്രാധാന്യം കൊടുക്കും പിന്നെ മറ്റു കുട്ടികൾക്കൊരു പഠനം കുറവാണെങ്കിൽ അവരുടെയൊപ്പം എത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കും സർക്കാര് സ്കൂളെന്ന് പറയുമ്പോള് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല കുട്ടികള് സമമായിരിക്കും അവരുടെ ജീവിതത്തിലെ കുറവുകളോ ഒന്നും അവര് അന്വേഷിക്കാറില്ല എല്ലാ കുട്ടികളും ഒരേപോലെ തന്നെ പഠിക്കുകയെന്നുള്ളതാണ് സർക്കാർ സ്കൂളുകളും സ്വകാര്യ സ്കൂളുകളും തമ്മിലുള്ള ഒരു വ്യത്യാസമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്